ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരുപാട് ഇപ്പം അമ്പലത്തിൻ്റെ പേരിലുണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് പിന്നെ അതൊക്കെ എല്ലാവർക്കും ജാതി മത ഭേദമന്യേ സഹായം നൽകുന്നുണ്ട് ആ എന്തെങ്കിലും അസുഖം വന്നിട്ടാകുമ്പോഴും പിന്നെ ആരെങ്കിലും അങ്ങനെ വിവാഹത്തിന് വിവാഹം കഴിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ധനസഹായം ചെയ്യുന്നുണ്ട് അതിനൊന്നും ആരും ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എല്ലാവരും എല്ലാ അവരവർക്കു പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് വിവാഹം ഒക്കെ നടന്നിട്ടുണ്ട് പലരുടെയും അതുപോലെ അങ്ങനെ സുഖമില്ലാത്തവരെ ചികിത്സിക്കുന്ന പാലിയേറ്റീവ് കെയറുകള് അത് ഹോസ്പിറ്റൽസ്ന്ന് പാലിയേറ്റീവ് കെയറിൻ്റെ യൂണിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ സഹായിക്കാൻ താല്പര്യമുള്ള ആൾക്കാരും മുന്നോട്ടു വന്നിട്ട് അസുഖ ബാധിതരായവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനും പിന്നെ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ താമസിക്കേണ്ടി വന്നാൽ താമസിക്കുവാനും ഒക്കെ ചെയ്യുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്

അവരെക്കൊണ്ട് എപ്പോഴും സഹായമല്ലാണ്ട് ഒരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല ആർക്കെങ്കിലും വയ്യാതെ കിടന്നു പോയപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ആണുങ്ങൾ ഒക്കെ വിദേശത്തൊക്കെ നിൽക്കുന്നവരായാൽ പോലും നമുക്കൊന്ന് കൊണ്ടും പേടിക്കേണ്ട നമ്മളുടെ സഹോദരങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്തു തരുന്ന അതുപോലെ ചെയ്ത് തരുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പിന്നെ ചില ഇപ്പോൾ ഒരാ ചിലരുടെ കയ്യിലൊക്കെ പൈസയൊക്കെ ഉള്ളവരോ നമ്മൾ പെട്ടന്ന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഒന്ന് ധനസഹായം ഒന്ന് തരുമോ ഒന്ന് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ചെയ്ത് തരുന്ന ആൾക്കാരുണ്ട് അതിനൊന്നും അവരങ്ങനെ പലിശയോ ഒന്നും വാങ്ങിക്കാറില്ല ആ കുറച്ചു നാളത്തേക്കല്ല അവരിപ്പോൾ ഒരു മാസം രണ്ടു മാസം അവധി പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കും അത് നമുക്കൊരു സഹായം എന്നുള്ള നിലയിലാണ് അവർ ചെയ്തു തരുന്നത് അങ്ങനെ നല്ലവരായ ആൾക്കാരൊക്കെ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പം അവരൊക്കെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു എല്ലാവരുടെയും പേരോന്നും എടുത്തു പറയുന്നില്ല